ഇന്ത്യയിലെ രാഷ്ട്രീയത്തെയും രാഷ്ട്രീയ പാർട്ടികളെയും കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ ഇന്ത്യയെക്കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ കുറിച്ചു പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഭരണമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ പുറമെ നല്ല ഇതാണെങ്കിലും നമ്മൾക്ക് ഇന്ത്യയിൽ അമിതമായിട്ടുള്ള സാധനങ്ങളുടെയും ഒക്കെ വില കയറ്റങ്ങളും പെട്രോളിയം ഗ്യാസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുടെ വിലക്കയറ്റങ്ങളൊക്കെ സാധാരണ ജനങ്ങളെ വളരെ അമിതമായ രീതിയിൽ ബാധിക്കുന്നുണ്ട് മാത്രമല്ല ഒരു ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ ഇന്ത്യയെ കുറിച്ചുള്ള അഭിപ്രായമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളുടെ പ്രതിനിധികളാണ് ഈ ഭരണത്തിലിരിക്കുന്നതെങ്കിലും ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ഈ ഭരണം വളരെ പിന്നോട്ടാണ് നിൽക്കുന്ന തെന്നാണ് തോന്നുന്നത് മാത്രമല്ല ഒരു രീതിയിലും ഇന്ത്യയിൽ നമുക്ക് ഒരു വരുന്ന തലമുറകൾക്ക് ഇന്ത്യയിൽ ഒരുതരത്തിലും തുടർന്നു ജീവിക്കാനുള്ളൊരു സാഹചര്യത്തിലല്ല ഇപ്പോഴത്തെ നമ്മുടെ ഒരു രാജ്യം മുന്നോട്ടു പോകുന്നത് സാധനങ്ങൾക്കുള്ള അമിതമായി കുതിച്ചുയരുന്ന വിലക്കയറ്റം സാധാരണ ജനങ്ങളെ വളരെ രീതിയിൽ ബാധിക്കുന്നുണ്ട് അമിതമായ പാചകവാതകത്തിൻ്റെയൊക്കെ അമിതമായ വിലവർദ്ധനയും എല്ലാം സാധാരണ ജനങ്ങളെ വളരെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട് നല്ല വിദ്യാഭ്യാസ ആശുപത്രികളാണെങ്കിലും വിദ്യാഭ്യാസ മേഘലകളാണെങ്കിലും എല്ലാം ഒരുപാട് വളരെ അമിതമായ രീതിയിലുള്ള ഫീസോ ഫീസ് ഈടാക്കലും എല്ലാം വലിയ വമ്പൻ എന്തുവാ ബിസിനസ്സ് സംരംഭങ്ങളാണി ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ ഇന്നത്തെ കാലത്ത് നടന്നു കൊണ്ടിരിക്കുന്നത് മാത്രമല്ല എല്ലാ സാധനങ്ങളുടെ ഈ ഈ ഉപ്പു തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്കു പോലും അമിതമായിട്ടുള്ള വിലക്കയറ്റം നമുക്ക് ഇന്നത്തെ കാലത്ത് ജീവിച്ചു പോകാൻ വളരെ പച്ചക്കറികൾക്ക് ആണെങ്കിലും അടുക്കളയിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങൾക്കാണെങ്കിലും വസ്ത്രങ്ങൾക്കാണെങ്കിലും എല്ലാറ്റിനും അമിതമായ വിലയാണിപ്പോൾ ഈ നമ്മൾ നേരിട്ടു കൊണ്ടിരിക്കുന്ന വലിയൊരു പ്രതിസന്ധി എന്നു പറയുന്നത് കൂടുതലും ഇനി വരുന്ന തലമുറ എന്നു പറയുന്നത് ശരിക്കും ശരിക്കും ഒരു നമ്മുടെ എന്തുവാ ഈ അനാഥാലയ മന്ദിരം പോലെയൊക്കെ ആയി തീരുമെന്നാണ് തോന്നുന്നത് കാരണം എല്ലാ മക്കളാണെങ്കിലും കൊച്ചുമക്കളാണെങ്കിലും എല്ലാം വിദേശത്തെല്ലാം പോയി അവിടെ സെറ്റിലാകാനാണ് ശ്രമിക്കുന്നത് ഇന്ത്യയിലെ നമ്മുടെ നാട്ടിലെ ആ അപ്പച്ചനാണെങ്കിലും അമ്മച്ചിയാണെങ്കിലും നാട്ടിലിട്ടിട്ട് മക്കളെല്ലാം വിദേശരാജ്യങ്ങളിൽ പോയി സെറ്റിലാകുന്നതു പോലെയാണ് തോന്നുന്നത് വല്ലപ്പോഴും ഇരിക്കുമ്പോഴൊക്കെ വന്ന് ഇവരെ കാണുന്ന ഒരു സമ്പ്രദായം ആയിരിക്കും ഇനി വരുന്ന തലമുറകളിൽ സാധ്യമാകുന്നത് കാരണം നമ്മുടെ ഒരു നമ്മുടെ ഒരു രാജ്യത്ത് ജീവിക്കാൻ പറ്റാത്തയൊരു സാഹചര്യമാണ് ഇപ്പോൾ ഇപ്പോൾ തുടർന്ന് നടന്നു കൊണ്ടിരിക്കുന്നത് ഒരു പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു നേതാവ് രാഷ്ട്രീയ പാർട്ടിയെയോ ഒന്നും വിശ്വസിക്കുന്നില്ല പൊതുവേ അങ്ങനൊരു വിശ്വാസം ഇല്ല ഒരു രാഷ്ട്രീയ നേതാവിനെ ഇഷ്ടമാണോ എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ നേതാവിനെയും ഇഷ്ടമല്ല ഇപ്പോൾ കേരളത്തിലാണെങ്കിലും ഒരു തരത്തിൽ ആണെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി വിശേഷമാണ് നടന്നു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഈ ഏതു പാർട്ടിയാണ് ഏതു രാഷ്ട്രീയ നേതാവിനെയാണ് ഇഷ്ടമെന്നു ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് യാതൊരുവിധ ഇഷ്ടങ്ങളോ ഒന്നും ഇല്ല ഒരു പാർട്ടിയിലും അങ്ങനെ അമിതമായി വിശ്വസിക്കുന്നും ഇല്ല